ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ച് എൻ്റെ അഭിപ്രായം വളരെ മോശമായ അഭിപ്രായമാണ് കാരണം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പാർട്ടി തന്നെ മുന്നിൽ നിന്നും ബാക്കി എല്ലാവരേയും അടിച്ചമർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് അവർ ആ ആ പാർട്ടിക്കാരാണ് എല്ലാം എന്ന് അവർ ജനങ്ങളുടെ ഇതിനൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല ജനങ്ങൾ ഓരോ കാര്യങ്ങൾ പണിതു പണിത് അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു പക്ഷെ ജനങ്ങൾ അറിയുന്നില്ല അവരെ ഈ പാർട്ടിക്കാർ ഉപയോഗിക്കുകയാണെന്ന് എന്റെ ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് ഇന്ത്യയെ കുറിച്ച് ഇഷ്ട്ടമുള്ള കാര്യം ഇവിടെ എല്ലാ തരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഇന്ത്യയിൽ ഇഷ്ട്ടം ഇല്ലാത കാര്യം അതായത് ഒരു പ്രത്യേക പാർട്ടിക്കാർ അവരുടെ പോലുള്ള ആൾക്കാരെ കൊണ്ട് ഇന്ത്യ നിറയ്ക്കാൻ ശ്രമിക്കുന്നു അവരുടേതായ അടവ് അജണ്ടകൾ മാത്രം പാസ്സ് ആക്കാൻ അവർ ശ്രമിക്കുന്നു അതായത് ബാക്കിയുള്ളവരെ അടിച്ചമർത്താൻ അവർ ശ്രമിക്കുന്നു ഇത് തീർച്ചയായും വളരെ തെറ്റായ കാര്യമാണ് അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം പണ്ടത്തെ ഇന്ത്യയിൽ എല്ലാവർക്കും വളരാൻ ഒരു വളരാനുള്ള ഒരു ശക്തി നമുക്ക് തന്നിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യ വളരുന്നവരെ കൂടെ അടിച്ചമർത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഇന്ത്യയിൽ മതവും വിദ്വേഷത്തിന്റെയും പേരിൽ കൂട്ടകൊലകൾ നടക്കുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യയിലാകട്ടെ മതത്തിന്റെ പേരിൽ ആണ് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകളും നടക്കുന്നത് പിന്നെ ഈ കാലഘട്ടത്തിലും ജാതിയുടെ മതത്തിന്റെയും പേരിൽ പല ആൾക്കാരും ദുഷിക്കപ്പെടുന്നു അതു വളരെയേറെ തെറ്റായ കാര്യമാണ്

എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ ഉള്ള ചോദ്യം നിങ്ങൾ എന്ത് ഓർത്ത് കൊണ്ടാണ് ഒരു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ഭരിക്കുന്നത് അതായത് ഒരു സാധാരക്കാരന്റെ ബുദ്ധി അതായത് നിങ്ങൾ ആവശ്യത്തിൽ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ വളരെയേറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരിക്കും